വീട്ടിൽ എൽ പി ജി ഗ്യാസ് യൂസ് ചെയ്യുമ്പം നമുക്കേറ്റവും അധികം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്യാസ് സിലിണ്ടറ് വീടിനുള്ളിൽ വെക്കാതെ അത് പുറത്ത് ക്രമീകരിക്കുന്നത് വളരെ അധികം നന്നായിരിക്കും എന്തേലും കാരണവശാൽ ഒരപകടം ഉണ്ടായാൽ ആ പ്രശ്നം വീടിനുള്ളിലേക്ക് കടക്കാതെ അത് വീടിന് പുറത്ത് വെച്ച് സംഭവിക്കുകയും അതുവഴി വലിയൊരു അപകടത്തെ തന്നെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ എൽ പി ജിയുടെ സ്വിച്ചുകൾ ഓഫ് ചെയ്യാനും ആവശ്യമുള്ളപ്പം മാത്രം അത് ഓണാക്കാനും ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും എന്തേലും കാരണവശാൽ ഗ്യാസുകൾ മറ്റും ലീക്കാകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിലെ ജനാലകൾ തുറന്നിടുകയും അത് വഴി എയർ സർക്കുലേഷനുണ്ടാവുകയും സ്വാഭാവികമായും ഗ്യാസെന്ന വാതകം ഉണ്ടാക്കിയ ആ ഫ്യൂംസ് തന്നെ പുറംതള്ളപ്പെടുകയും ചെയ്യും ഗ്യാസ് സിലിണ്ടറുകൾ മറ്റു രാജ്യങ്ങളിലെ പോലെ അണ്ടർഗ്രൌണ്ട് പൈപ്പുകളിലൂടെ അല്ല നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മളുടെ നാട്ടിൽ വരുന്നത് ഗ്യാസ് സിലിണ്ടറുകളിലാണ് അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഉള്ള എൽ പി ജിയുടെ സുരക്ഷാ അവനവൻ തന്നെ ഉറപ്പു വരുത്തേണ്ടതാണ് ഇതിന് നമ്മൾ തന്നെ സുരക്ഷാ മുൻകരുതലകൾ എടുക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതുവഴി ഗ്യാസിലിണ്ടറുകൾ പുറത്ത് സ്ഥാപിക്കുന്നത് വഴി ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അപകട സാധ്യതകൾ തരണം ചെയ്യാനും അതുവഴി വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും ആകും എൽ പി ജി ഗ്യാസുകൾ വളരെ അധികം കൺവീനിയൻ്റാണെങ്കിലും നമ്മൾ മുൻകരുതലുകളെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ അധികം ദുഷ്കരമായിരിക്കും എന്തു കൊണ്ടെന്നാൽ അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ് എൽ പി ജി സ്ഥിതീകരിക്കുമ്പോൾ അത് വീടിന് വെളിയിൽ സ്ഥാപിക്കുന്നതാവും സുരക്ഷയേ മുൻകരുതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവു നല്ല കാര്യം എൽ പി ജി ഗ്യാസുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതും വളരെ നന്നായിരിക്കും അതിന് പകരം ബയോഗ്യാസ് എന്നിവയുടെ ഉപയോഗം വളർത്തി എടുക്കുകയും അതുവഴി നാച്ചുറൽ ഗ്യാസുണ്ടാക്കുകയും റീസൈക്കിൾ ചെയ്യപ്പെടുകയും വേസ്റ്റുകളിൽ നിന്നും നമുക്ക് ഫ്യുവൽ ഉണ്ടാക്കാൻ സാധിക്കുകയും ഇത് സമൂഹത്തിലുള്ള മലിനീകരണം കുറയ്ക്കാനും അതുവഴി സമൂഹത്തിൽ വളരെ അധികം നല്ലൊരു പഴയോ ബയോ ഫ്യുവൽ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നു എൽ പി ജി ഗ്യാസുകളുടെ ഉപയോഗം വളരെ അധികം നല്ലതാണെങ്കിൽ കൂടിയും അതിന് ഒരുപാടധികം ദൂഷ്യവശങ്ങളും കൂടെ ഉണ്ട് എന്തിരുന്നാലും നമ്മുടെ നാട്ടിൽ വളരെ കോമണായിട്ട് എല്ലാവർക്കും എല്ലാവരും യൂസ് ചെയ്യുന്ന ഗ്യാസും എൽ പി ജി തന്നെയാണ് മറ്റേത് ഗ്യാസുകളുടെ ഉപയോഗത്തെ പോലെ തന്നെയും ഇതിൻ്റെ ഉപയോഗവും നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ് അതുകൊണ്ട് തന്നെയും എൽ പി ജിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ബഹിഷ്ക്കരിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുക ഇല്ല